ഞാൻ അത്ര നല്ലൊരു കലാകാരനാണെന്ന് ഞാൻ പറയില്ല കാരണം കൊച്ചിലേ സ്കൂൾ കാലങ്ങളിൽ കുറേ വരച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിലും വളരേ നല്ല രീതിയിലുള്ള ഒരു കലാകാരനാണെന്ന് ഞാൻ പറയില്ല ചെറിയ ചെറിയ രീതികളിൽ നോക്കി നോക്കി വരക്കാറുള്ള അതല്ലാണ്ട് ഞാൻ വലിയൊരിതുണ്ടെന്ന് ഞാൻ പറയില്ല പിന്നേ എനിക്കിതിനകത്തോട്ട് ഇൻട്രസ്റ്റ് വന്ന് തുടങ്ങിയത് എൻ്റനിയത്തീനെ കണ്ടിട്ട് തന്നെയാണ് അപ്പോള് എൻ്റെ ഏറ്റവും പ്രീയപ്പെട്ടൊരു കലാകാരൻ അഥവാ കലാകാരി എന്ന് ഞാൻ എൻ്റെ അനിയത്തീനെ തന്നെ ഞാൻ പറയുള്ളു അവൾ അത്ര നല്ലൊരു രീതിയിൽ വരയ്ക്കുകയും നല്ല രീതിയിൽ ഷേഡിങ്ങായാലും നമ്മളുടെ പോർട്രേറ്റുകളായാലും ആൾക്കാരെ ഇപ്പോൾ നോക്കാണ്ട് പോലും അവൾക്കിപ്പോള് വരച്ചെടുക്കാൻ സാധിക്കും അതായത് ഇപ്പോള് ഇത്രയും കാലം ഫോണിലൊരു ഫോട്ടോ നോക്കി അത് അതേപോലെ വരച്ചെടുത്തോ ണ്ടിരുന്ന ആള് ഇപ്പോള് ഒരു കോഴ്സും പ്രാക്റ്റീസും കാരണം വെക്കേഷൻ സമയങ്ങളിൽ ഫുൾ ടൈം വരച്ചും എല്ലാം പ്രാക്റ്റീസ് ചെയ്ത് ചെയ്ത് ഇപ്പോള് നല്ല രീതിയിൽ കൈ വഴങ്ങി വന്നപ്പോൾ ഇപ്പോൾ കാണാതെതന്നെ പല കാര്യങ്ങളും വരയ്ക്കാനുള്ള കഴിവ് അവള്ക്ക് ഡെവലപ്പായി വന്നു അപ്പോള് അതൊക്കെ കാണുമ്പോൾ തന്നെ എനിക്കും വളരെ വലിയൊരു പ്രചോദനമാണ് അവൾ തന്നെ ആണ് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കലാകാരി ഞാൻ പേർസണലി ഈ ഇപ്പോഴും വരയ്ക്കില്ല സ്കൂൾ കാലങ്ങളിൽ കുറേ വരച്ചിട്ടിരുന്നുണ്ടെങ്കിലും അതൊക്കെ ജെസ്റ്റ് ചെറിയ രീതിയിലുള്ള നോക്കി വരപ്പാണ് കാർട്ടൂൺ പോലത്തെ കൊച്ച് കൊച്ച് വരപ്പുകളാണ് നല്ല രീതിയിൽ ഒരു ജീവൻ വരുന്ന ആ വരയ്ക്കുന്ന ചിത്രത്തിനൊരു ജീവൻ വരുന്ന രീതിയിലുള്ളൊരു കഴിവ് എനിക്കില്ല അപ്പോൾ അത് ഞാനെൻ്റനിയത്തിയിലാണത് കൂടുതലും കണ്ട് വരുന്നത് ഷെയ്ഡിങ് അങ്ങനത്തെ പല പല കാര്യങ്ങൾ ഉപയോഗിച്ച് നല്ല രീതിയിൽ ആ ഒരു ചിത്രത്തിനൊരു ഭംഗി പകർത്ത് കൊടുക്കുന്ന രീതിയിലുള്ള ചെയ്യാറുള്ള കഴിവ് എൻ്റനിയത്തിക്കുള്ളതായിട്ടാണെനിക്ക് തോന്നിയത് അത്രയും നല്ല രീതിയിൽ എന്നെക്കൊണ്ട് ഞാൻ പലവട്ടം ശ്രമിച്ചിട്ടും എന്നെക്കൊണ്ടത് ചെയ്യാൻ സാധിച്ചിട്ടില്ല